എല്ലാവരും അവരവരുടെ ആരോഗ്യം നിലനിർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ പലരും വ്യായാമവും ജിമ്മിൽ പോകുന്നത് ഒക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരും ആണ് ഇതിനൊക്കെ ഉത്തമമായ ഒരു വഴിയാണ് കുതിരസവാരി കാരണം കുതിരസവാരി ചെയ്യുന്നതോ ചെയ്യുന്നതിലൂടെ നമ്മുടെ മാനസികാരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയുന്നു അതുപോലെതന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിത് നല്ലതാണ് അതുപോലെതന്നെ നമ്മുടെ മസിൽ വരാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുതിരസവാരി എന്ത് കൊണ്ടും നല്ലതാണ് അതുപോലെതന്നെ നമ്മുടെ നമ്മളിത് കുതിരസവാരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ആപത്തും വരുത്തുന്നില്ല എപ്പോഴും നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് എന്നും നല്ലതു തന്നെയാണ് ഇത് പിന്നെ നമുക്ക് ജിമ്മിൽ പോകുന്നതും അതുപോലെതന്നെ വ്യായാമം ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കി കുതിരസവാരി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് കുതിരസവാരി അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ മാനസികാരോഗ്യവും അതുപോലെതന്നെ അവരുടെ മസിലും കാര്യങ്ങളും എല്ലാം നിലനിർത്താൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് വേറെ ആപത്തുകൾ ഒന്നും വരുത്തുന്നില്ല എന്തുകൊണ്ടും കുതിരസവാരി നല്ലതുതന്നെയാണ്